ഇങ്ങനെയൊരൂ ആഗ്രഹം മനസ്സിലുണ്ടങ്കിലും ഇതുവരെ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എല്ലാ ദിവസവും നടക്കണം ഓടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പ്രാവർത്തികമാകുന്നില്ല തന്നെയല്ല ഇപ്പം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ സ്മാർട്ട്വാച്ച് ആണ് അല്ലെങ്കിലും ഫോണിലുള്ള സ്റ്റോപ്പ്വാച്ച് ആണ് പക്ഷെ അത് ഞാൻ വളരെ കാഷ്വൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതൊരു സീര്യസ് ആയിട്ടുള്ള ഒരു ഉപയോഗത്തിലേക്ക് ആയിട്ടില്ല അതുപോലെത്തന്നെ ഡേറ്റുഡേ ലൈഫിൽ എന്തെങ്കിലും ഗോൾസ്സ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ മനസ്സിൽ ആഗ്രഹമുണ്ടങ്കിലും അതിതുവരെ അങ്ങോട്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് നന്നായിട്ട് ഓടണം നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും റെഗുലർ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അത് ഒരു നമ്മുടെ ഒരു ഇച്ഛാശക്തിയുടെ കുറവാണ് അപ്പം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഫോൺലക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആപ്പ്കളും ഉണ്ട് സ്മാർട്ട്വാച്ച്കൾക്ക് ആപ്പ്കളുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്ന ഒരു ലെവൽലേക്ക് നമ്മുടെ ഡെയിലി റുട്ടീൻ ആയിട്ടില്ല അപ്പം അതാണ് ഇപ്പൾത്തെ ഒരു സാഹചര്യം ഗോള്കളക്കെ ഉണ്ടെങ്കിലും ആ ഗോള്കൾ പ്രാവർത്തികമാക്കാൻ ഇതുവരെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല